ഇപ്പോൾ ഇന്ത്യയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല മാധ്യമങ്ങളും കാര്യങ്ങളുമൊക്കെ നമ്മുടെ ഇന്ത്യയിൽ ഇഷ്ടം പോലെയുണ്ട് ഇപ്പോൾ അതായത് ഇപ്പോൾ ഇംഗ്ലീഷ് ചാനൽസ് മലയാളം ചാനൽസ് തെലുങ്ക് ചാനൽസ് തമിഴ് ചാനലിൽ അങ്ങനെ പല രീതിയിലുള്ള ചാനലുകളും കാര്യങ്ങളുമൊക്കെ നമുക്ക് ഇവിടെയുണ്ടെന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും ഇപ്പോൾ കേരളത്തിലെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് ചാനലുകൾ ഉണ്ട് ഇപ്പോൾ ട്വൻറി ഫോർ ഉണ്ട് മലയാള മനോരമ മീഡിയ വൺ ഏഷ്യാനെറ്റ് ന്യൂസ് കൈരളിയുടെ ഇപ്പോൾ ഓരോ ചാനലും ഓരോ വ്യക്തികളെ അഭിമുഖീകരിച്ച് ചിലപ്പോൾ പറയാൻ വേണ്ടിയിട്ടുള്ള ഒരു ചാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ കൈരളി ന്യൂസെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് മാർക്സസ്റ്റ് പാർട്ടിക്ക് വേണ്ടി മാത്രമുള്ള ഒരു ന്യൂസും കാര്യങ്ങളൊക്കെയാണ് മനോരമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കോൺഗ്രസുകാരുടെ മാത്രമാണ് ഇപ്പോൾ ജനം ടി വി എന്നു പറഞ്ഞ ഒരു ചാനലുണ്ട് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർ എസ് എസ്സുകാർക്ക് മാത്രമുള്ള ഒരു ചാനലും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അവരെ പുകഴ്ത്തി പറയുക മറ്റുള്ളവരെ താഴ്ത്തിപ്പറയുക അങ്ങനത്തെ പലരീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവരിപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല പലരീതിയിൽ ഇവർ അവതരിപ്പിക്കുന്നുണ്ട് ഇപ്പോൾ എല്ലാം ശരിയാകണമെന്നില്ല പലരീതിയിൽ അവർ കിട്ടുന്ന ആരുടെ ചെവിയിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് ഇപ്പോൾ ചെവി ചെവിയിലല്ല ആരുടെ വായിൽ നിന്നെങ്കിലും എന്തെങ്കിലും ഒന്ന് വീഴാൻ വേണ്ടിയിട്ട് ഇവർ കാത്തിരിക്കും അത് ശരിയാണെന്ന് പറഞ്ഞു ഫലിപ്പിക്കുകയും ചെയ്യും അതാണ് വാർത്ത ചാനലെന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞാൽ